എൻ്റെ ഫോൺ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്നിവയ്ക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ അത് റിപ്പേർ ചെയ്യുന്നതിന് അംഗീകൃത സേവന കേന്ദ്രങ്ങളെയാണ് സമീപിക്കാറുള്ളത് അംഗീകൃത സേവന കേന്ദ്രങ്ങൾ അല്ല ഞാൻ

ഉപകരണങ്ങൾ കേട് വരാൻ കൂടുതൽ ബാധ്യതയാണുള്ളത് ഇത്തരം സാധനങ്ങൾ സ്വന്തം റിപ്പേർ ചെയ്യാൻ ഒരിക്കലും മുതിരാറില്ല കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഫോൺ എന്നിവ റിപ്പേർ ചെയ്യുന്നതിന് മഞ്ചേരിയിൽ അംഗീകൃത സേവന കേന്ദ്രങ്ങൾ ആവശ്യത്തിന് ഉണ്ട് എന്നുള്ളതിനാൽ ഈ ഇവ റിപ്പേർ ചെയ്യുന്നതിന് അവിടെ തന്നെയാണ് കൊണ്ട് പോവാറുള്ളത്